ഗ്യാസ് ഏജൻസി അല്ലേ ഞാൻ ഇവിടെ നെടുംകുന്നത്തൂന്നാണ് അപ്പം വാഴക്കാല ഏജൻസി ആണല്ലോ അല്ലേ ഓക്കേ എനിക്ക് നമ്മളിപ്പം ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് സാധാരണ ഗ്യാസ് ആണ് അപ്പം അതിനു വേണ്ടി ഞാൻ അങ്ങോട്ടൊരു സിലിണ്ടറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഗ്യാസിന് ചിലവും കാര്യങ്ങളും ഒക്കെ ആയത്കൊണ്ട് ഞാനത് ഇലക്ട്രിക് ഗ്യാസ് ആണ് ഇപ്പം പ്രിഫെറ് ചെയ്യുന്നത് അതപ്പം എനിക്ക് ഒരെണ്ണം അവയിലബ്ളായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നത് ആ ഗ്യാസിൻ്റെ കുറ്റി എനിക്ക് റദ്ദാക്കി തരണം എനിക്ക് ക്യാൻസല് ചെയ്യാനായിട്ടാണ് താൽപ്പര്യം അപ്പോൾ അതൊന്ന് റദ്ദാക്കി ഒന്ന് തരണം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഇലക്ട്രിക്ക് യൂസ് കംഫർട്ടബ്ളല്ലെങ്കിൽ പിന്നീട് എനിക്കിത് മാറ്റി കിട്ടോ എനിക്കത് ക്യാൻസലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് തരുവോ അത് ഈ സെയീം നമ്പറ് തന്നെ ആയിരിക്കുവോ അല്ലെങ്കിൽ വേറെ നമ്മൾ പിന്നെ വേറെ നമ്മൾ പുതിയ കണക്ഷൻ എടുക്കേണ്ടി വരുമോ റദ്ദാക്കി റദ്ദാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കണക്ഷൻ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കണോ അതോ നമുക്ക് റദ്ദാക്കിയ സെയീം നമ്പറ് തന്നെ നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ അറിയാനായിട്ടാണ് വിളിച്ചത് പിന്നെ നിങ്ങളുടെ എൻ്റെ റ ബ്ബുക്കിംഗ് റെഫറൻസ് നമ്പറ് സിക്സ് എയ്റ്റ് സെവെൻ ഫൈവ് റ്റൂ വൺ സീറോ സിക്സ് ആണ് അപ്പം അത് ചെയ്തിട്ട് റദ്ദാക്കീയെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു മെസ്സേജ് എപ്പം ലഭിക്കും വൈകിട്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് എനിക്ക് ചെയ്ത് തരാമോ കൂടുതൽ എനിക്ക് കംഫർട്ടബളായിട്ട് തോന്നുന്നത് എന്നാം ഗ്യാസ് ഇലക്ട്രിക് സ്റ്റൌ ആയതുകൊണ്ടാണ് മാറ്റുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അറിയാം പിന്നെ നമുക്ക് സോളാർ ഒക്കെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോജനം ഇലക്ട്രിക്കാണ് മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ജോലിയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പൈസയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ കംഫർട്ടബളായിട്ട് തോന്നിയത് ഇലക്ട്രിക്കായത് കൊണ്ടാണ് ഇനി അഥവാ ഇനി ഇതിനെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഇത് പിന്നീട് ചെയ്തത് തരുന്നതിനു പ്രശ്നം ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്കൾ എനിക്ക് വേണ്ടി ചെയ്ത് തന്ന ഈ ഉപകാരത്തിന് നന്ദി